ഏറ്റവും കൂടുതൽ അറിയാനും അതിനെ കുറിച്ച് പഠിക്കാനും ആകാംക്ഷയുള്ളത് സ്റ്റാർസിനെ പറ്റിയാണ് അത് ഇങ്ങനെ കാണുമ്പോൾ നമ്മ നമ്മൾ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ അതിനെ നോക്കുമ്പോൾ രാത്രിയാകുമ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റാർസിനെ കാണാം നമുക്ക് എണ്ണിയാൽ തീരാത്തതിൽ അധികം സ്റ്റാർസിനെ കാണാം അപ്പോൾ അതിൻ്റെ വലുപ്പം പലരും പറയുന്നു അത് ഭയങ്കര വലുതാണ് നമ്മുടെ ഭൂമിയെക്കാളും ചന്ദ്രനെക്കാളും ഒക്കെ ഒരുപാട് വലുതാണെന്ന് അപ്പോൾ ചിലർ ചില പഠനങ്ങൾ പറയുന്നു അത് ഒരുപാട് വലുപ്പം ഇല്ല എന്നാൽ ഭൂമിയുടെ അത്രയൊക്കെ തന്നെയേ ഉള്ളു എന്ന് അപ്പോൾ ഇത്രയും വലുപ്പം ഉള്ളത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ദൂരെ നമ്മൾ ഇങ്ങു ഭൂമിയിൽ നിന്ന് നമ്മൾ അതിനെ നോക്കുമ്പോഴത്തേന് നമ്മൾ അതിനെ കാണുമ്പോഴത്തേന് നമുക്കാണെ അതിനെ അതിനെ അതിനെ പറ്റിയറിയാനും അത് അതിനോട് നമ്മൾ കൂടുതൽ നമ്മൾ അട്ട്രാക്റ്റ് ചെയ്യുകയാണ് കാരണം ഇത് ഇങ്ങനെ തിളങ്ങുന്നു ചില സമയത്ത് വാൽനക്ഷത്രങ്ങൾ കാണുമ്പോൾ ഇത് എങ്ങനെ ഇത് ഓടിപോകുന്നത് അത് ഇങ്ങനെ മിന്നായം പോലെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഇത് എങ്ങനെയാണ് സഞ്ചരിക്കുന്ന് ഇതെന്ത് ഫോഴ്സിലാണ് ഇത് പോകുന്നത് അന്നേരം ഇത് ഇത് എവിടെയെങ്കിലും പോയി ഇടിക്കുമോ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ ഔ റൗണ്ടാണോ ഇതിൻ്റെ സർഫസ് എങ്ങനാ എന്നൊക്കെ അറിയാൻ നമുക്ക് ഒട്ടനവധി നമുക്ക് ആകാംഷകൾ കാണും ഇത് ചന്ദ്രനെ പോലെതന്നെയാണോ അതിന് ചന്ദ്രൻ്റെ സർഫസ് തന്നെയാണോ എന്ന് നമ്മൾ ആണെങ്കിലും ഇങ്ങനെയൊന്ന് ചിന്തിച്ച് പോകും അപ്പോൾ ഇതിനെ പറ്റിയറിയാൻ നമ്മൾ ഞ വളരെ ക്യൂരിയസാണ് അത് അതിൽ ഇ ഇ ഇതിൻ്റെ അതായത് ഈ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഇ ഇവിടെ വായു ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ത ലിവിങ് തിങ്ങ്സ് എന്തെങ്കിലും ഉണ്ടോ അന്യഗ്രഹ ജീവികളോ അങ്ങനെ അപ്പോൾ അതിൽ അതിൽ ലിവിങ് തിങ്ങ്സുകൾ ഉണ്ടോ അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ വളരെ ക്യൂരിയസാണ് അപ്പോൾ എർത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാൻ വളരെ ക്യൂരിയസ്സാണ് പിന്നെ അത് അതിനെ പറ്റി അറിയാനും അത് എന്താണ് എന്ന് അറിയാനും വളരെ ആകാംക്ഷയുള്ളത്കൊണ്ട് തന്നെ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പഠിക്കുന്നത് കൊണ്ട്തന്നെ ആ അപ്പോൾ അത് അതിനെ പറ്റിയുള്ള പഠിത്തം പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അടുത്തത് എന്താണ് അപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അതിനെ പറ്റി ഇനിയുള്ള സ്റ്റഡീസ് എന്താണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതറിയാൻ വേണ്ടി ഇ ശ്രദ്ദി ശ്രമിക്കുന്നത് കൊണ്ടുതന്നെ അത് അതിനെ പറ്റി അറിയുന്നത് കൊണ്ട് നമുക്ക് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ സ്റ്റഡീസ് കൂടുതൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിനെ കുറിച്ച് അറിയാൻ ആയിട്ട് ആകാംക്ഷയുള്ള ആൾക്കാർ ഒട്ടനവധി ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ പറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നതു കൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഭൂമി ഇപ്പോൾ അതിൻ്റെ അ അവിടെയുള്ള ചന്ദ്രൻ ചന്ദ്രനിൽ വെള്ളം ഉണ്ടെന്ന് പലരും പറയുന്നു വെള്ളം ഇല്ലെന്ന് കുറേപേർ പറയുന്നു അപ്പോൾ അവിടെ വായു ഉണ്ടെന്ന് പറയുന്നു വായു ഇല്ലെന്ന് പറയുന്നു അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒക്കെ അറിയാൻ വേണ്ടി ഓ ഒരുപാട് ക്യൂരിയസ് ആണ് എല്ലാവരും എന്നെ പോലെത്തന്നെ ഇതിനെ പറ്റി അറിയാൻ വേണ്ടി ആകാംക്ഷയുള്ളവരുമുണ്ട് എന്നാൽ ഇതിനെ പറ്റി അറിയാനായിട്ട് തീരെ തീരെ ആകാംക്ഷയില്ലയെന്നല്ല എന്നാൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഉള്ളവർ ഒ ഉള്ളതു കൊണ്ട് തന്നെ തന്നെ അത് ശ്രമിക്കുന്നവർ ഉണ്ട് ആ അപ്പോൾ അത് എന്താണ് അപ്പോൾ അതിനെ പറ്റി അതിനെ പറ്റിയറിയാവുന്ന അത് എന്താണ് അങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അവർ അതിനെ പറ്റി സ്റ്റഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി പേഴ്സണലി ഞാൻ ഭയങ്കര ക്യൂരിയസ്സാണ് ചന്ദ്രന് ചന്ദ്രൻ്റെ ഷേപ്പ് ചന്ദ്രൻ അടുത്തിരുന്നാൽ എത്ര വലുപ്പം വരും ചൻ ചന്ദ്രൻ്റെ സർഫസ് എങ്ങനെയാണ് അവിടെ സാൻഡ് ടൈപ്പാണോ അതോ ഹാർഡ് സർഫസ്സാണോ റോക്ക് റോക്ക് അത് റോക്ക് ചേർന്ന വളരെ ഹാർഡായിട്ടുള്ള സർഫസ്സാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ് അപ്പോൾ അതിനെ പറ്റി അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ പറ്റിയറിയാൻ അപ്പോൾ സ്റ്റഡീസ് അതിനെ പറ്റിയറിയാൻ പുറത്ത് വിടുന്നുണ്ട് അത് എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി സ്റ്റഡീസ് പുറത്ത് വിടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇത് നമ്മുടെ എർത്തിൻ്റെ പുറത്ത് ഉള്ള സ്പേസ് സ്പേസും കാര്യങ്ങളിലൊക്കെ വളരെ അധികം ഇനിയും അറിയാത്ത കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോഴും ആൾക്കാർക്ക് അറിയാത്ത സ്റ്റഡീ സ്റ്റഡീസിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ ഉണ്ടെന്നാണ് പലരും പറയുന്നത് അപ്പം അതിനെ പറ്റി അറിയാനായിട്ടും വളരെ അവിടെ ഇ ഇ അന്യ ജീവികൾ ഒക്കെ ഉണ്ടെന്നും അപ്പോൾ അവർ ഇങ്ങനെ അവർ ഭയങ്കര ടെക്നോലിക്ക് ടെക്നോളജികലി ആൾ ഭയങ്കര അപ്ഗ്രേഡഡ് ആണെന്നും അപ്പോൾ അതിനെ പറ്റിയൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഇ ഇങ്ങനെ പലരും റുമേഴ്സ് ഇങ്ങനെ അറിയുന്നത് കൊണ്ട് തന്നെ പേഴ്സണലി ക്യൂറിയസ് ആയിട്ടുള്ള ആൾക്കാർ ഒട്ടനവധി ആൾക്കാരുണ്ട് ഞാൻ ഉൾപ്പടെ അതിനെ പറ്റിയറിയാൻ അറിയാൻ വേണ്ടി കൂടുതൽ ക്യൂരിയസായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെ ക്യൂരിയസ്സായത് കൊണ്ട്തന്നെ അതിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുക തന്നെ ചെയ്യും അപ്പോൾ വീഡിയോസ് ഒരുപാട് കാണും അതിനെ പറ്റി ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെയുണ്ട് അത് ഈ സ്പേസിലെ ഒരു ലീക്ഡ് ഫോട്ടോസ് അപ്പോൾ ആ സ്പേസിൽ കാര്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ അവിടെ ഇങ്ങനെ ഒന്ന് മുട്ടില്ല അത് റൗണ്ടിലാണ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് ഇങ്ങനെ ബാക്കി ഗ്രഹങ്ങളും സൂര്യന് ചുറ്റുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയും അപ്പോൾ സ്പേസിനെ പറ്റി പഠിക്കാൻ വേണ്ടിത്തന്നെ വളരെ ക്യൂരിയസ്സാണ് ഞാൻ അത് കൂടാതെ തന്നെ ഇത് ഇപ്പം ഭൂമി തന്നെയാണെങ്കിലും ഇതുവരെ നമുക്ക് നമുക്ക് ചിന്തിച്ച് നമ്മൾ ചിന്തിച്ച് പോകും ഇത് എന്താണ് ഇത് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമ്മൾ നമ്മൾ അറിയാൻ വേണ്ടി ഇതിനെ പറ്റി ആഗ്രഹിച്ചു പോകും കാരണം അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ഷേപ്പിലുള്ള നമുക്ക് ഒരേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോഴും ചെ ചില സമയങ്ങളിൽ മേഘങ്ങൾ മേഘങ്ങളുടെ ഇടക്ക് രൂപങ്ങൾ തെളിഞ്ഞ് വരും രൂപങ്ങൾ തെളിഞ്ഞ് വരുന്നത് തോന്നുന്നതല്ല പക്ഷെ റിയലി നമ്മൾ അത് ആ സ്റ്റഡീസ് വരെ പറയുന്നത് രൂപമാണ് എന്നാണ് അപ്പോൾ അതൊക്കെ എന്താണ് ഇങ്ങനെ വരുന്നത് അപ്പം ഇതിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി വളരെ ക്യൂരിയസ്സാണ് ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നും ആർക്കും അറിയില്ല ഇപ്പോഴും അറിയാത്ത ഇത് ഇപ്പോഴും സ്റ്റഡീസിന് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും എർത്തിൽ തന്നെയുണ്ട് അതുമല്ല അതിൻ്റെ ഇരട്ടി ഇരട്ടിടെ ഇരട്ടി കാര്യങ്ങൾ സ്പേസിലുമുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടി വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഞാനും വളരെ ക്യൂരിയസാണ് എർത്തിൽ തന്നെ ആണെങ്കിലും പല പല പല പല സ്ഥലങ്ങളിൽ പല പല സാധങ്ങൾ ഇപ്പോഴും സ്റ്റഡീസിന് പോലും അത് എന്താണ് അത് എങ്ങനെയാണെന്ന് പോലും അവർക്ക് പോലും കണ്ടെത്താൻ പറ്റാതെ ഇതുണ്ട് അതുമല്ല ഇപ്പം ഇപ്പോൾ അങ്ങനെ സ്പേസിനെ പറ്റി പറയാൻ വേണ്ടി ഒരുപാട് പേര് സ്റ്റിൽ ക്യൂരിയോസ്ഡാണ് അപ്പം അവർ ഇപ്പോഴും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട് അവർ ഇപ്പോഴും അതിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നത് കൊണ്ട്തന്നെ അവർക്ക് കൂടുതൽ അതിനെ പറ്റി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നെ സ്പേസിൽ ഇപ്പം അവിടുത്തെ അവിടെ അവിടെ ഇങ്ങനെയാണ് അവിടുത്തെ ഇപ്പം നമുക്ക് ഇപ്പം കണക്ഷൻ ഇല്ല നമ്മൾ പറന്ന് പോകും ഗ്രാവിറ്റി കുറവാണ് അത് അതല്ല ഗ്രാവിറ്റി കുറവാണ് ഗ്രാവിറ്റി ഇല്ല അത്കൊണ്ട് തന്നെ നമ്മൾ പറന്ന് പറന്ന് ഇനി എവിടെ നമ്മൾ ഇനി എങ്ങോട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഗ്രാവിറ്റി ഇല്ലാതെ പൊങ്ങി പോയി കഴിഞ്ഞാൽ അത് എവിടെയാണ് എത്തുന്നത് എന്ന് സ്റ്റിൽ അത് എത്തുന്ന എൻ എൻഡില്ല അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റി എവിടെ ചെല്ലും എന്നുള്ള ഒരു ക്യൂരിയസാണ് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും സ്റ്റിൽ സ്റ്റിൽ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാര് ഒരുപാട് പേരുണ്ട്